ഓൺലൈനിൽ നിന്ന് ഒരു സാരി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മാരേജ് ഫങ്ക്ഷനോക്കെ ഇടാൻവേണ്ടിയിട്ടുള്ളൊരു ഒരു പിങ്ക് കളർ സ്റ്റോൺ വർക്കൊക്കെ ആയിട്ടുള്ളൊരു സാരി അത് ഞാൻ ഓഡർ ചെയ്ത് രണ്ട് ദിവസത്തിനകം തന്നെ എനിക്കത് കിട്ടി നല്ല കാളിറ്റി ആയിട്ടുള്ളൊരു സാധനം ആയിരുന്നു അതിൻ്റെ തുണി ആണെങ്കിലും ആ സ്റ്റോൺ വർക്കൊക്കെ ആയിട്ടാണെങ്കിലും ആ ഒരു പെർഫെക്റ്റ് സാരി തന്നെ ആയിരുന്നത് ഒരു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സാരി തന്നെയിരുന്നു എനിക്ക് കിട്ടിയത് ഞാൻ ഒരു രണ്ടുമൂന്നാൽ ഫങ്ക്ഷൻസിനൊക്കെ അതിട്ടിട്ട് പോയി എല്ലാവരും നല്ലതായിരുന്നു എവിടുന്നാണ് വാങ്ങി എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല കമന്റ്സ് തന്നെയായിരുന്നു പറഞ്ഞത് ന്ന ന്തായാലും നല്ല ഒരു സാരിയായിരുന്നു അത്